മൺപാത്രം ഉണ്ടാക്കുന്നവർക്ക് ഒന്നും ഒരു കലാരൂപമായിട്ട് വികസിപ്പിച്ചിട്ടില്ല നമ്മുടെ കേരളം ഒന്നും അത്രയും വികസിച്ച് ഇന്നും അങ്ങനെയുള്ളവർക്ക് ഒന്നും പ്രാധാന്യം കൊടുക്കുന്നുമില്ല നമ്മുടെ കേരളത്തില് കാരണം എന്നാന്നു ചോദിച്ചാല് അതൊക്കെ എന്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കാവുന്ന മേഖലകളാണ് അതൊക്കെ നമ്മള് വികസിപ്പിച്ച് നല്ല രീതിക്ക് കൊണ്ടു കൊടുക്കുവാണെങ്കില് അതൊക്കെ വികസിപ്പിച്ചെടുത്ത് പല വിദേശികളെ നമുക്ക് അതിന് ആകർഷിപ്പിച്ച് അവര് വന്ന് അതൊക്കെ പഠിക്കാനും അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാനും അത് വഴിയൊക്കെ നമ്മുടെ രാജ്യത്തെ സമ്പത്ത് വർദ്ധിപ്പിക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പക്ഷേ അതിനൊന്നും നമ്മുടെ ഗവൺമെൻ്റോ മറ്റുള്ള അധികാരികളോ ഒന്നും അതിനായിട്ട് ഒത്തിരി സമയം മെനക്കെടുത്താറില്ല അവരൊക്കെ ലാഭമുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് കൂടുതൽ സമയങ്ങള് മെനക്കെടുത്തുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിലും കൂടുതല് ശ്രദ്ധ കൊടുത്താലേ കാരണം പുറം രാജ്യങ്ങളിലെല്ലാം അവര് വലിയ വലിയ കാര്യങ്ങളേക്കാള് കൂടുതലും കൊച്ചുകൊച്ചു കാര്യങ്ങൾക്കാണ് കൂടുതല് ശ്രദ്ധ കൊടുക്കുന്നതേ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കലാരൂപങ്ങള് എല്ലാം കൊച്ചു കൊച്ച് കലകളൊക്കെ വികസിപ്പിച്ചു കൊണ്ടു വന്നു അവർക്ക് അതിനോടൊക്കെ ഒത്തിരി ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഉള്ളവരാണ് നമ്മുടെ കേരളത്തില് തന്നെ എന്താ അറിയാന്മേലാത്തെ കേരളീയർക്ക് കേരളീയർക്ക് അറിയാൻ മേലാത്ത ഒരു കാര്യങ്ങളുമില്ല അതുപോണക്കാണ് നല്ല രീതിയിലാണ് കേരളത്തിലെ ഇതുള്ളത് പക്ഷേ അതൊന്നും ഇത് പൊണക്ക് പ്രോത്സാഹിപ്പിക്കാനും വികസിപ്പിച്ച് കൊണ്ടുവരാനും ആരും ആരും മെനക്കെടാൻ ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങനെ നിന്നു പോകുന്നു പക്ഷെ ഒരു നല്ലതാണ് വിദേശികളെ ഒത്തിരി ആകർഷിക്കാവുന്ന ഒരു കാര്യങ്ങളാണ് ഇതിൻ്റെ കലാരൂപങ്ങൾ ഏതെല്ലാം രീതിയിലാണ് ഇതുള്ളത് മൺപാത്ര മണ്ണുകൊണ്ട് ഉണ്ടാക്കാൻ മേലാത്ത കാര്യങ്ങൾ ഒന്നുമില്ല പാത്രങ്ങൾ തന്നെയല്ലല്ലോ ശില്പങ്ങളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മണ്ണുകൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ അപ്പോള് അതിനൊക്കെ നല്ല ഒരു കാര്യമാണ് മൺപാത്രങ്ങൾ ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്കെല്ലാം നല്ലയൊരിതാണ് പക്ഷേ അത് നമ്മള് വികസിപ്പിക്കണം അത് കണക്ക് വിനോദ സഞ്ചാരികളെ ആകർഷിക്കാനുള്ള മേഖനകളും അതിനൊക്കെയുള്ള തയ്യാറെടുപ്പുകള് ഒക്കെ നമ്മള് ചെയ്യണം അതൊക്കെ ചെയ്താല് തീർച്ചയായിട്ടും നമുക്ക് അത് ഒരു നല്ല കാര്യമാണ് അത് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങനെയുള്ള ഇത് ഉണ്ടാക്കുന്ന വിഭാഗക്കാർക്ക് ഒരു മുതൽക്കൂട്ടുമാണ് നമുക്ക് അവർക്കൊരു സാമ്പത്തിക സഹായവും ആണ് നമ്മുടെ നാടിന് അതൊരു മുതൽക്കൂട്ടുമാണ് അപ്പോള് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ പല കാര്യങ്ങൾ ചെയ്യുക അതിനൊക്കെ നമ്മളെല്ലാവരും കൂടെ സഹകരിക്കണം അത് സഹകരിക്കാനായിട്ട് ഗവൺമെൻറും മുൻകൈ എടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളില് അങ്ങനെ ഇത് ചെയ്യുന്ന കുറേ ആൾക്കാർ ഓരോരുത്തരും ഓരോരുത്തരുടെ കുലത്തൊഴിലുകളാണല്ലോ ഇത് അതൊക്കെ ഉണ്ടാക്കുന്ന അവരെ കൂടൊക്കെ മുന്നോട്ട് കൊണ്ടു വന്ന് അവരുണ്ടാക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക വിനോദസഞ്ചാരികൾക്ക് അതൊക്കെ കാണാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ ചെയ്താല് തീർച്ചയായിട്ടും ഒത്തിരി നല്ല ഒരു കാര്യമാണ് അവർക്കും പ്രയോജനം നമ്മുടെ നാടിനും പ്രയോജനം നമ്മുടെ നാടിനെ കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ പുറത്ത് പുറംലോകം അറിയാനും എല്ലാവരും കൂടുതൽ വിനോദ സഞ്ചാരികളൊക്കെ ആകർഷിക്കപ്പെട്ട് വരാനും എല്ലാത്തിനും ഇത് സഹായിക്കും അതുകൊണ്ട് മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നവരും ശില്പങ്ങൾ ഉണ്ടാക്കുന്നവരെയൊക്കെ നമ്മള് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക അവരെ ആദരിക്കുകയും അവർക്ക് കൊടുക്കേണ്ട അർഹത കൊടുത്ത് അവരെ കൂടെ മുൻഗണത്തിൽ കൊണ്ടു വന്ന് അവരെ കൂടെ സംരക്ഷിക്കണം എന്നുള്ളതും സത്യമായ ഒരു കാര്യമാണ്